ഹലോ നമ്മൾ വയനാട്ടിലേക്ക് ഒരു ട്രിപ്പ് വരുന്നുണ്ടേ നമ്മളിവിടെ എറണാകുളത്തിന്ന് ആണ് വിളിക്കുന്നേ വയനാട് എല്ലാ സ്ഥലവും കാണാൻ വേണ്ടി ആയിരുന്നു അപ്പോൾ നമുക്ക് നമ്മളിവിടെ എറണാകുളത്തുനിന്ന് ട്രെയിനിലാണ് കോഴിക്കോട് വരുന്നത് കോഴിക്കോടുനിന്ന് ബസ്സിനാണ് വരുന്നത് അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് വണ്ടിയൊന്നും നമ്മൾ എടുക്കുന്നില്ല അപ്പോൾ നമ്മൾ രണ്ട് പേരാണ് വരുന്നത് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ വരുന്നത് അപ്പം നമുക്കൊരു ടൂ വീലർ റെൻറ്റിന് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയായിരുന്നു ആണല്ലെ പേരാണോ

ആ പെർ ഡേ അല്ലേ അപ്പോൾ എണ്ണയൊക്കെ നമ്മൾ തന്നെ അടിക്കണോ ആ ഹാ ഹാ ഹാ ആണല്ലേ ആ ഓക്കെ ഓക്കെ

ആ ആ പിന്നെ നമ്മളോട് നമുക്ക് സ്ഥലവും കാര്യങ്ങളൊന്നും വലിയ പിടുത്തം ഇല്ല അപ്പോൾ അതൊക്കെ നിങ്ങൾ പറഞ്ഞൊന്ന് അറേഞ്ച് ചെയ്തുതരുമോ നമുക്ക് താമസം ഫുഡ് ആ പിന്നെ ഫുഡ് നമുക്ക് താമസം അങ്ങനെ ഉള്ളതൊക്കെയോ നമുക്ക് ഓവർ റേറ്റിൻറെയൊന്നും വേണ്ട അപ്പം ഒരൂ തൗസൻഡ് ആ ഒരു റേറ്റിലുള്ളത് മതി പിന്നെ ഫുഡ് ഒക്കെയോ ഫുഡ് ഒക്കെയുള്ള റിസോർട്ട് അങ്ങനെ ആണെങ്കിലും ആ ആ ഓക്കെ ആണല്ലേ ആ ഹാ ഹാ ആ ആ ഇപ്പം പിന്നെ വണ്ടി നമുക്ക് എപ്പോഴാണ് വേണ്ടതെന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇപ്പം മഴയൊക്കെയല്ലേ എല്ലാ സ്ഥലവും ഓപ്പൺ ആണോ അവിടെ അത് അറിഞ്ഞിട്ടൊക്കെ വരാം ഓപ്പൺ ആയിട്ടുണ്ടല്ലേ ആ ഹാ ഹാ ആണല്ലേ ആ അങ്ങനെ ആണെങ്കിൽ നമ്മൾ വരുന്ന സമയം നമ്മൾ നേരെ ആദ്യമേ ബുക്ക് ചെയ്യണോ ബുക്ക് ചെയ്യണോ എന്ന് ആ അത് ആണല്ലേ ആ ആ ആ ആ എന്നാൽ ഓക്കെ ഞാൻ എന്നാൽ നിങ്ങളെ വരുമ്പോൾ എന്തായാലും ഈ നമ്പറിൽ വിളിച്ചാൽ പോരേ ആ ഓക്കെ ഓക്കെ ഓക്കെ താങ്ക് യൂ എന്നാൽ